ഹാ

ഡേറ്റ് നിങ്ങള് അങ്ങനെയാണെങ്കില് ശനിയാഴ്ച വന്നോളൂ അല്ല നിങ്ങള്ക്ക് മൈഗ്രെൻ്റെ വല്ല കുഴപ്പങ്ങള് അങ്ങനെയെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോള് ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുന്നിലിരിക്കുന്നതു കൊണ്ടുമാകാം അങ്ങനെ വരാനും ചാൻസുണ്ട് ഒരുപാട് നേരമവിടെ ടൈം സ്പെൻ്റ് ചെയ്യുന്നതല്ലേ അതിൻ്റെ വർക്ക് പ്രഷര് കാരണം അങ്ങനെയും വരാൻ ചാൻസുണ്ട് ആ ഇല്ലെങ്കിൽ മൈഗ്രെൻ്റെ തുടക്കമായിരിക്കും അങ്ങനെയാണെങ്കില് ഞാൻ ശനിയാഴ്ചയുണ്ടാകും പക്ഷേ എന്നെ കിട്ടണമെങ്കില് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടിവരും വെള്ളിയാഴ്ച വിളിച്ച് ബുക്ക് ചെയ്യണം ആ വെള്ളിയാഴ്ച വിളിച്ച് ബുക്ക് ചെയ്യണം അതിനായിട്ട് നിങ്ങള് ഇനിയിപ്പം വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരണമെന്നില്ല ഞാനൊരു നമ്പര് വാട്സപ്പിലിട്ടേക്കാം ആ നമ്പറില് വിളിച്ച് പറഞ്ഞാല് മതി അപ്പോള് അവര് ടോക്കൺ തരുമായിരിക്കും ചിലപ്പോള് വൈകുന്നേരമായിരിക്കും കിട്ടുക ഇപ്പോഴൊരു മൂന്നുനാല് പേഷ്യൻ്റ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നിങ്ങള്ക്ക് ചിലപ്പോഴൊരു ഒരാറാമത്തെ ടോക്കണൊക്കെയായിരിക്കും കിട്ടുക നോക്കട്ടെ നോക്കി നോക്കാം എന്താണ് പ്രശ്നമെന്ന് ചിലപ്പോള് മൈഗ്രെൻ്റെ തുടക്കമായിരിക്കും ഉം വേറെയങ്ങനെ അസുഖങ്ങള് അങ്ങനെ ഒന്നുമില്ലല്ലോ ഇതുവരെയുണ്ടായിട്ടുണ്ടോ ഈ ഷുഗര് പ്രഷര് അതൊക്കെ എങ്ങനെ നോർമ്മലാണോ കുഴപ്പമൊന്നുമില്ല ആ അങ്ങനെയാണെങ്കില് നമുക്ക് ശനിയാഴ്ച തന്നെ നോക്കാം ഓക്കേ അങ്ങനെയാണെങ്കില് ഞാൻ നമ്പര് വാട്സാപ്പിലയച്ചേക്കാം ശരിയാഴ്ച വന്നാല് മതി ഓക്കേ ആ ഓക്കേ ശരിയെന്നാല്